നമ്മുടെ വീട്ടുമുറ്റത്തെ പൂന്തോട്ടത്തിലൊക്കെ പക്ഷികളെ ആകർഷിക്കുന്നതിന് നമ്മൾ ധാന്യങ്ങളോ വെള്ളമോ ഒന്നും വയ്ക്കാറില്ല നമ്മുടെ വീടിന്റെ ചുറ്റും പൂന്തോട്ടം അത്യാവശ്യം നല്ലൊരു ഗാർഡനിങ്ങ് ഉണ്ട് അവിടെ പക്ഷികൾ വരാറുണ്ട് പക്ഷികൾ വന്ന് ആൾക്കാരെ കാണുമ്പോൾ പറന്നു പോകും ഈ പ്രാവുകളോ അങ്ങനത്തെയൊന്നും ഇല്ല സാധാരണ കുരുവികൾ മൈനകൾ അങ്ങനെ ഉള്ളതൊക്കെ വരും അതിനെ ആകർഷിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകിച്ചൊന്നും വെച്ചിട്ടൊന്നുമില്ല പിന്നെ പലരും വെച്ചു കണ്ടിട്ടുണ്ട് പല വീടുകളിലും പല വീടുകളിലും ഒരു കൃത്യസമയമാകുമ്പം മയിലുകള് അരി അരിമണി നെല്ല് മണി അവര് വിതറിയിടും അത് കൊത്താൻ തിന്നാനും അതേപോലെ തന്നെ പ്രാവുകൾക്ക് കൃത്യസമയം കൃത്യം ഇന്ന ഇന്ന സമയം ചിലപ്പോൾ ഒരു നാല് മണി സമയം പർട്ടിക്കുലർ ടൈമിൽ പക്ഷികൾ പറന്നു വരാറുണ്ട് അത് സ്ഥിരമായിട്ട് ലഭിക്കുന്നത് വീണ്ടും ലഭിക്കാൻ വേണ്ടി വരുന്ന പക്ഷികളുണ്ട് അങ്ങനെ പലരും ചെയ്തും കണ്ടും കേട്ടിട്ടുണ്ട് അതേപോലെ കണ്ടിട്ടുമുണ്ട് അതൊക്കെ പ്രത്യേകം ഒരു ഫീൽ തന്നെയാണ് നമക്കിപ്പം നമ്മൾ പ്രത്യേകിച്ച് അങ്ങനൊന്നും ചെയ്യാത്തതുകൊണ്ട് നമുക്ക് അങ്ങനൊരു അനുഭവം ഇല്ല കണ്ടും കേട്ടും ഉള്ള അനുഭവം മാത്രമേയുള്ളൂ